ദിവസവും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പ്രാർത്ഥനകൾ അല്ലാതെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലില്ല പ്രാർത്ഥന പള്ളിയിൽ പോക്ക് പള്ളിയിൽ പോയിട്ടുള്ള ആരാധനകൾ ഇതെല്ലാം കൂടാറുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും കറക്റ്റ് ആയിട്ട് പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുകയും ചെയ്യും പിന്നെ പ്രാർത്ഥനകൾ നാഗമ്പടത്ത് പള്ളിയിലായിരുന്നു ചൊവ്വാഴ്ച ദിവസം ആരാധനയും പിന്നെ കുർബാനയും ഉണ്ട് അതിൽ പോവും എല്ലാ ദിവസവും കൃത്യമായും സന്ധ്യ നേരങ്ങളിൽ കു കൊന്ത ചൊല്ലുകയും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്യും പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ സമയത്തും ഞാൻ പിന്നെ കൊന്ത ചൊല്ലുകയും ഇഷ്ടമുള്ള കൊ പിന്നെ ഇത് നൊവേനകൾ പ്രാർത്ഥനകൾ ചെയ്യുവൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് ഏത് സമയത്തും ഞാൻ കൊന്ത ചൊല്ലും കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം